ഞാൻ ചെറിയൊരു ബ്യൂട്ടിക്കില് ജോലി ചെയ്തിട്ടുള്ള ഒരാളാണേ അവിടെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ചുരിദാറിൻ്റെ ചുരിദാറ് ചുരിദാറാണ് ഞങ്ങൾക്ക് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത് പിന്നെ ചുരിദാറിൻ്റെ ടോപ്പുകള് പാൻ്റ്കള് അങ്ങനുള്ള ടീഷർട്ടുകള് അതുപോലെ തന്നെ ജീൻസ് അങ്ങനുള്ള ചെറിയ ചെറിയ കുറച്ചു കുറച്ച് സാധനങ്ങള് ഉണ്ടായിരുന്നു ആ അത് കണക്ക് തന്നെ ചുരിദാറിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞതുണ്ട് കൂടിയതുണ്ട് അങ്ങനെയുള്ള പല ഐറ്റങ്ങളുണ്ട് ചുരിദാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരിദാറിൻ്റെ തുണി തുണിക്കൊരു വില റെഡിമെയ്ഡിന് വേറൊരു വില അങ്ങനെ പല പല രീതിയിലാണ് ചുരിദാറുകള് അത് കണക്ക് ഷർട്ട് ബ്ലൗസ് ബ്ലൗസിന് തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്ലൗസിന് കുറെ നിസ്സാരം വിലയേ കാണത്തുള്ളൂ കാരണം എന്നാന്നു വെച്ചാൽ ഒരു മീറ്ററിന് എൺപത് രൂപയോ അല്ലെന്നുണ്ടെങ്കില് കുറഞ്ഞ തുണി തൊട്ട് കൂടിയത് കൂടിയ തുണി വരെയുണ്ട് എന്നാലും കുറഞ്ഞ ഒരു ബ്ലൗസിന് തുണിയ്ക്ക് എൺപത് രൂപ ഒരു മീറ്ററിന് എൺപത് രൂപ വരുന്നതൊക്കെയുണ്ട് പിന്നെ ഷർട്ടിന് ആകുമ്പഴത്തേക്കും ഒരു മുന്നൂറ്റംബത് നാനൂറ് ആ അങ്ങനെ അങ്ങോട്ട് അങ്ങോട്ടുള്ള വില വരും പിന്നെ സൽവാറ് സൂട്ടിനൊക്കെ വില കൂടുതലാണ് സൽവാറ് റെഡിമെയ്ഡ് ആകുമ്പഴേത്തേക്കും അതിൻ്റെതാണ് അതിൻ്റെതായിട്ടുള്ള വില വരും ചുരിദാർ ടോപ്പ് ആണെന്നുണ്ടെങ്കില് ഒരു എഴുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് ആയിരം അല്ലെന്നുണ്ടെങ്കില് അറുന്നൂറ്റിയമ്പത് മുന്നൂറ്റമ്പത് തൊട്ടുള്ള ചുരിദാറിൻ്റെ ട്ടോപ്പുകളുണ്ട് പിന്നെ സൽവാറിൻ്റെ സ്യൂട്ട് എന്ന് പറയുമ്പഴത്തേക്കും അതിൻ്റെ അതിനെക്കാട്ടിലും കൂടുതലൊക്കെ വില വരുന്നതുണ്ട് കുറഞ്ഞത് മുതല് കൂടിയ ഷർട്ടുകൾ തുണിത്തരങ്ങള് വരെയുണ്ട് പിന്നെ ഓരോ ഓരോ തുണി കടകളിലും അല്ലെങ്കിൽ ഓരോ ഓരോരോ മോഡലനുസരിച്ചാണ് അതിൻ്റെ വില നിശ്ചയിക്കുന്നത് അല്ലാതെ കുറഞ്ഞതാകുമ്പോഴേക്കും കുറഞ്ഞതിൻ്റെ രീതിയിലായിട്ടുള്ള വില വരും കൂടിയത് ആവുമ്പോഴേക്കും കൂടിയതിൻ്റെ രീതിയിലുള്ള വില വരും പിന്നെ അത് ഉപയോഗിക്കാൻ ആയിട്ട് അതിൻ്റെതായിട്ടുള്ള ആൾക്കാര് വന്ന് എടുത്തുകൊണ്ട് പോകുന്നത് പിന്നെ അത് കണക്ക് തന്നെ നമ്മള് അവരെ ചിലർക്ക് ആണെന്നുടെങ്കില് നമുക്ക് അവരെ കൊണ്ട് എടുപ്പിക്കാനൊക്കെ പാടായിരിക്കും അവരെ നമ്മള് പ്രോത്സാഹിപ്പിച്ച് അത് പറഞ്ഞു പറഞ്ഞു ഇത് നല്ലതാണ് അല്ലേൽ അത് നല്ലതാണ് ഇതു നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മള് അവരെ മെയിൻ്റെയിൻ ചെയ്ത് അവരെ പാകപ്പെടുത്തി എടുപ്പിക്കും എടുപ്പിക്കും അങ്ങനെയാണ് ഓരോന്ന് പോകുന്നത് അങ്ങനെ ഓരോന്ന് ചെയ്ത് അവര് അങ്ങനെ പോകുന്നത് അത് കണക്ക് തന്നെ ഓരോ ബിസിനസ് എന്ന് പറയുമ്പോഴേക്കും ബിസിനസ് എന്ന് പറയുമ്പോഴേക്കും അതൊരു ബിസിനസ് തന്നെയാണ് കാരണം അവരെ അതിൻറ്റാത്ത് ലാഭം ലാഭമില്ലാതെ എന്ത് എന്താണെന്ന് പറഞ്ഞാലും അവര് ഇത് വിക്കത്തില്ല കുറഞ്ഞതാണെന്ന് പറഞ്ഞാലും കുറഞ്ഞതിൻ്റെതായിട്ടുള്ള ലാഭം അവരെടുക്കും കൂടിയതാണെന്നുണ്ടെങ്കിൽ കൂടിയതിൻ്റെതായിട്ടുള്ള ലാഭം അവരെടുക്കും ആ ഒരു ലാഭത്തിലാണ് അവര് മുന്നോട്ടുപോകുന്നത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിക്ക് അവര് ലാഭം എടുത്തിട്ട് വേണം ആണ് അവര് വിൽക്കുന്നത് പിന്നെ എന്നെ സംബന്ധിച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല വെറൈറ്റി വെറൈറ്റിയുള്ള ചുരിദാറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ ചുരിദാറാണ് ഇടുന്നത് അതുകൊണ്ടാണ് ചുരിദാറിനെ കുറിച്ച് കൂടുതലും പറയുന്നത് ചുരിദാറാവുമ്പോഴേക്കും ചുരിദാറ് ഒത്തിരി വെറൈറ്റികളുണ്ട് പിന്നെ